ആ അപ്പം ഒരു ഒരിക്കലും സ്റ്റാമ്പ് ഒരു ശേഖരണത്തിലും നാണയം കൊണ്ടു വരാനൊന്നും പറയുന്നതിന് അതൊന്നിനും പങ്കെടുത്തിട്ടൊന്നും ഇല്ല അങ്ങനെ പങ്കെടുക്കാനെന്നെ വിളിച്ചിട്ടും ഇല്ല എനിക്കങ്ങതിലേക്ക് ഒരു ഷോയിലും റോക്ക് ഷോയിലോ ഒന്നെങ്കിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ഈശ നാണയങ്ങളൊക്കിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതേയുള്ളൂ അതിപ്പോൾ ഏതെങ്കിലും കാലത്താരെങ്കിലും ചോദിച്ചാൽ കൊട് കാണിക്കാം എന്നുള്ള ഒരു രീതിയിൽ മാത്രമേയുള്ളൂ അല്ലാതെ അതൊന്നും ഇങ്ങനെ പങ്ക് വെച്ചിട്ടില്ല അവിടുത്തെ ഇട്ടിട്ടില്ല എന്നോടാരുമൊന്നും ചോദിച്ചിട്ടും ഇല്ല എക്സിബിഷനിൽ അമ്മോ എക്സിബിഷനിങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഫെസ്റ്റ് അത് അങ്ങനെയൊക്കെയുള്ള സംഘടനയിൽ അങ്ങനെ ഫെസ്റ്റൊക്കെ പോലുള്ളിടത്തൊക്കെ പോകുമ്പോൾ എക്സിബിഷൻ വെച്ചിരിക്കുന്നിടത്തു പോയി കണ്ടിട്ടുണ്ട് വേറുള്ളവർ വെച്ചിരിക്കും വേറുള്ളവരുടെ സ്റ്റാമ്പ് ശേഖരണങ്ങളൊക്കെ ഞാൻ പോയി കണ്ടിട്ടൊക്കെയുണ്ട് സ്വന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്ക്ന്ന സ്റ്റാമ്പോ ശേഖരണങ്ങളും നാണയമോ ഇതൊന്നും വെച്ചിരിക്കുന്നൊന്നാരും വന്നു കാണാനും വേറെ ഇടത്ത് എടുത്തുകൊണ്ടു ചെന്ന് കാണിക്കാനൊന്നും അങ്ങനെയാരും ആവശ്യപ്പെട്ടിട്ടില്ല ഞാനത് ചെയ്തിട്ടും ഇല്ല